ട്രക്കിങ്ങ് പൂർത്തിയാകുമ്പോൾ മനസ്സ് ഭയങ്കരമായിട്ട് റിലാക്സ്ഡ് ആയിട്ട് എപ്പോഴും ഫീൽ ആവുന്നുണ്ട് ഭയങ്കര സമാധാനവും ട്രക്കിങ്ങിൻ്റെ ഏറ്റവും ഉയരത്തിൽ എത്തുമ്പോൾ ഉള്ള ഒരു അവിടുത്തെ ആ കാഴ്ചകളും എപ്പോഴും മനസ്സിനെ സന്തോഷിപ്പിക്കാറുണ്ട് അതെനിക്ക് എപ്പോഴും ഒരു ഈ യാത്ര കഴിഞ്ഞിട്ടുള്ള ഏറ്റവും ഉയർച്ചയിൽ എത്തുമ്പോഴുള്ള അവിടുത്തെ ആ കാഴ്ചകളാണ് എന്നെ എപ്പോഴും അൽഭുതപ്പെടുത്തിയിട്ടുള്ളത് പിന്നെ യാത്രയിൽ വളരെ ക്ഷീണിതരാവാറുണ്ട് ഒരുപാട് ബുദ്ധിമുട്ടുകൾ സഹിച്ചാണ് ഈ ട്രക്കിങ്ങിന് പോവുന്നത് പക്ഷേ മുകളിൽ എത്തുമ്പോഴുള്ള അവിടുത്തെ ആ ഒരു നല്ല എയറും ആ വായു എല്ലാം നമ്മൾ ശ്വസിക്കുമ്പോൾ ആ കാറ്റും ഒരുപാട് ഒയ് ഉണർവ് നമുക്ക് എപ്പോഴും തരാറുണ്ട് അത് ഭയങ്കര ഒരു പോസിറ്റിവിറ്റി ഒരു എപ്പോഴും ഞങ്ങളിൽ ഉണ്ടാക്കുന്ന ഒരു കാര്യമാണ്